മീൻ പിടുത്തം എന്ന് പറയുന്നത് നമക്ക് കുറേയധികം സാധ്യതകളുണ്ട് നമുക്ക് അതൊരു തൊഴിലായിട്ട് കൊണ്ട് നടക്കാം അത് കൂടാതെ തന്നെ നമുക്ക് കടലിലേയ്ക്ക് മീൻ പിടിക്കാൻ പോകുന്ന ടൈമില് ആൾക്കാരോരോ സ്പേസുകൾ ഉണ്ട് ഓരോരോ ദിശകളിൽ ചാകര ഉണ്ടാകും മീനിൻ്റെ കുറെ അധികം മീനുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാം നമുക്ക് അപ്പം അത് അവിടെ ചെല്ലുമ്പോൾ പിടിക്കുന്ന അതിൻ്റെ ഇടയില് നമുക്ക് വല പൊട്ടി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതിന് പൈസ മുടക്കി പിന്നെ നമ്മള് അതിൻ്റെ പൈസ അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് റിസ്ക്ക് പിടിച്ച കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഇതൊരു തൊഴിളായിട്ട് കൊണ്ട് നടക്കാം നമുക്ക് മീൻ പിടിക്കുക കൊണ്ടുപോയി വിൽക്കുക അങ്ങനത്തെ ഒരു കാര്യം നോക്കാം നമുക്ക് ഇതൊരു ബിസിനസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അത്രയും റിസ്ക് എടുക്കണ്ട ഇത് വരുന്നുണ്ട് ഇപ്പ തോണിയിൽ ആണെങ്കിലും പോകുന്ന ടൈമില് അപകടം സാധ്യത ഒക്കെ കൂടുതലാണ് നമ്മൾ അതൊക്കെ തരണം ചെയ്ത് ചെയ്യണം

മീൻ പിടുത്തം ഒരു നല്ലൊരു പരിപാടിയാണ്